എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മത്സ്യം കരിമീനാണ് കരിമീൻ തന്നെയാണ് എൻ്റെ നാട്ടിൽ വിഫലമായി കിട്ടുന്ന മത്സ്യവും അതിൻ്റെ സ്വാദെന്നു പറയുന്നത് വളരെ ഗംഭീരമാണ് കഴിച്ചാലും കഴിച്ചാലും മടുക്കാത്ത മത്സ്യമാണ് കരിമീൻ കരിമീനിൻ്റെ ഇംഗ്ലീഷ് നാമം പേൾസ്പോട്ട് എന്നാണ് കരിമീൻ ഞങ്ങൾ വലവീശിയും ചൂണ്ടയിട്ടും പിടിക്കാറുണ്ട് കരിമീൻ മപ്പാസ് കരിമീൻ പൊള്ളിച്ചത് ഇവിടുത്തെ അടിപൊളി വിഭവമാണ് സാധാരണയായി ഇവിടെ എൻ്റെ നാട്ടിൽ ആൾക്കാർ കഴിക്കുന്ന മത്സ്യം എന്നു പറയുന്നത് ഈ പറഞ്ഞ കരിമീൻ കൊഞ്ച് ആ ചൂടൻ വയമ്പ് കട്ടള കാരി കൂരി വരാൽ ചെറുമീന് ഇവയൊക്കെയാണ് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കരിമീൻ തന്നെയാണ് കരിമീനിനു ശേഷമുള്ളത് വരാലാണ് വരാലൊരു വളരെ രുചികരമായ കറി വെച്ചു കഴിഞ്ഞാൽ വളരെ രുചികരമായ മത്സ്യമാണ് അതുപോലെ തന്നെയാണ് വറുത്തു കഴിച്ചാലും വളരെ സ്വാദേറിയ മത്സ്യമാണ് കരിമീൻ അത് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു മത്സ്യം തന്നെയാണ് കരിമീൻ എന്നു പറയുന്നത് എൻ്റെ നാട്ടിൽ പിന്നെ ഉള്ളത് സുലഭമായി കിട്ടുന്ന മത്സ്യം എന്നു പറയുന്നത് പരൽ പള്ളത്തി പോലെയുള്ള ചെറിയ ചെറിയ മീനുകളാണ് ചെറിയ ചെറിയ മീനുകളാണ് പരൽ പള്ളത്തി ചൂടൻ വയമ്പ് ഇതൊക്കെ ഞങ്ങൾ ചൂണ്ടയിട്ടും വലവീശിയും പിടിക്കും പിന്നെയുള്ളത് വലിയ വലിയ മത്സ്യങ്ങളാണ് വലിയ വലിയ മത്സ്യങ്ങൾ എന്നു പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാള കട്ടള കാരി കൂരി വരാൽ ചെറുമീന് ഇവയൊക്കെ വളരെ സുന്ദരവും കാണാൻ സുന്ദരവും നാവിന് രുചികരവും ഏകുന്ന മത്സ്യങ്ങളാണ് ഇവയൊക്കെ എൻ്റെ നാടിൻ്റെ അതിൻ്റെ പ്രകൃതി ഭംഗിയും അതിൻ്റെ ഭൗതികശാസ്ത്രത്തിൻ്റെ കിടപ്പുവശങ്ങൾ കൊണ്ടുമാണ് ഈ കരിമീനൊക്കെ ഇവിടെ വളരുന്നത് കരിമീൻ സാധാരണയായി പെരുകുന്നത് എങ്ങനെയാണെന്നു വെച്ചാൽ അത് ഇവിടെയുള്ള ആറിൻ്റെ തീരങ്ങളിലുള്ള കൽക്കെട്ടുകളിൽ മുട്ടയിട്ട് മുട്ടയിട്ട് വളരും അവ ഇണചേരും ഇണ ചേരുന്നതിന് പറയുന്നത് ആ ഒരു പേരുണ്ട് സോറി മറന്നു പോയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ആളുകൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മത്സ്യങ്ങൾ ഇവയൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതലായി നമ്മൾ മേടിക്കുന്ന പിന്നെ വില കൂടുതൽ ഈ കട്ടിളക്കാണ് അതിനാൽ തന്നെ കട്ടിളയ്ക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ആറ്റ് വാളയെ പിടിക്കും കൂരുവാളയുണ്ട് അങ്ങനെ ഒരുപാട് മത്സ്യങ്ങൾ ഉണ്ട് നമുക്ക് കഴിക്കാനായിട്ട് അതിൽ എനിക്ക് കൂടുതലിഷ്ടം ഈ പറഞ്ഞ കരിമീൻ തന്നെയാണ് പേൾസ്പോട്ടെന്ന് ഇംഗ്ലീഷ് നാമത്തിൽ അറിയപ്പെടുന്ന കരിമീൻ അതിന് ഒരുപാട് ആരാധകരുണ്ട് ഈ ടൂറിസത്തിൽ നിന്ന് വരുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ ഈ വഞ്ചി വള്ളത്തിൽ കൊടുക്കുന്ന മത്സ്യമാണ് ഈ കരിമീൻ അതുകൊണ്ടുതന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മത്സ്യം കരിമീൻ തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ കട്ടള വാള കൂരി കൊഞ്ച് എല്ലാം വളരെ സുന്ദരവും നാവിനു രുചികരവും മനസ്സിന് സമാധാനവും തരുന്ന മത്സ്യങ്ങളാണ്